കാളവണ്ടിയോട്ടം ആട് കോഴിപ്പോര് തുടങ്ങിയ മൃഗങ്ങളുമായി ബന്ധപ്പെട്ട സാമൂഹിക ആഘോഷങ്ങളിൽ ഞാൻ പങ്കെടുത്തിട്ടൊന്നുമില്ല ഇതുവരെയോ പങ്കെടുത്തിട്ടില്ല ഇങ്ങനെ പറഞ്ഞ് കേട്ടിട്ടുണ്ട് അതുപോലെ ടി വിയിലും സിനിമയിലും ഒക്കെ ഒരുപാട് കണ്ടിട്ടുണ്ട് ഒരുപാടല്ല എങ്കിൽപ്പോലും കണ്ടിട്ടുണ്ട് അത് ആദ്യ ഒന്നും അറിയില്ലായിരുന്നു ചെറിയ കുട്ടി ആയിരിക്കുമ്പോൾ ഒന്നും അറിയില്ലായിരുന്നു വലുതായപ്പോഴാണ് കൂടുതൽ അറിഞ്ഞ് അറിഞ്ഞത് കോഴിപ്പോരെന്നു വച്ചാൽ കോഴിപ്പോരാണ് കൂടുതലും കണ്ടിട്ടുള്ളത് അങ്ങോട്ടും ഇങ്ങോട്ടും അടി ഇങ്ങനെ അടി കൂടുന്ന അടി കൂടുന്നത് പോലെയൊക്കെ കണ്ടിരിക്കാൻ ഒരു രസം തന്നെയാണ് പക്ഷെ അതിനോ അതുമായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് കൂടുതലായിട്ടൊന്നും അറിയില്ല കാളവണ്ടിയോട്ടം അടിപൊളിയാണ് കാളവണ്ടിയോട്ടം എന്നു വച്ചാൽ ഒരുപാട് കാള കാളയെക്കൊണ്ട് ഫസ്റ്റ് അടുപ്പിക്കുക എന്നുള്ളൊരു ഉദ്ദേശത്തോടുകൂടി കാളയോട്ടം അതൊക്കെ ടി വിയിലൊക്കെ കണ്ടിട്ടുണ്ട് ഇതൊക്കെ കാണാനൊക്കെ ആസ്വദിക്കാനൊക്കെ ഇഷ്ടമാണ് പക്ഷെ ഞാൻ ഇതുവരെ നേരിട്ടു കണ്ടിട്ടില്ല ആഘോഷങ്ങളിലൊന്നും പങ്കെടുത്തിട്ടുമില്ല അതുകൊണ്ടുതന്നെ കൂടുതലായിട്ട് പറയാനൊന്നും എനിക്ക് അറിയില്ല ഇതിനെപ്പറ്റി